കേരളത്തിലെ വിനോദ രംഗത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് എങ്ങനെ തരം തിരിക്കാമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ നിറമാണ് നമുക്ക് പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ കേരളം നമ്മുടെ കേരളത്തിനെ ദൈവത്തിൻ്റെ നാടെന്നാണ് വിശേഷിപ്പിക്കാറ് അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ നാട് തന്നെയാണ് നമ്മുടെ കേരളം അതായത് നമുക്കിപ്പോൾ വേറെ പുറം രാജ്യങ്ങളിലും അതായത് കേരളം ഒഴിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും അല്ലെങ്കില് വേറെ ഇന്ത്യ ഒഴിച്ച് ബാക്കി സംസ്ഥാ രാജ്യങ്ങൾലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല അപ്പോൾ അത്രയ്ക്കൊരു കാര്യ അതായത് പിന്നെ പ്രകൃതി രമണീയമായൊരു സ്ഥലവാണ് നമ്മുടെ കേ കേരളം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പം പറയാം നമുക്ക് പച്ചപ്പ് നിറഞ്ഞ ഭൂപ പ്രകൃതി പിന്നെ തണുത്ത ഭൂ പിന്നെ തണുത്ത കായലുകള് അങ്ങനെ കായലുകള് പ്രകൃതി പ്രകൃതി കാണാൻ തന്നെ നമ്മക്കൊരുപാട് ഭംഗിയാണ് നമ്മുടെ കേരളത്തിലെ എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ദൈവത്തിൻ്റെ നാട്ടിലാണ് ജീവിക്കുന്നത് നമക്കത്രയും നല്ലൊരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ കിട്ടുന്നത്